ആദ്യം തന്നെ പറയുക എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു വാൽനക്ഷത്രത്തേയോ ഉൽക്കാവർഷമോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരനുഭവം പങ്കുവെക്കാൻ എനിക്കറിഞ്ഞുകൂട പക്ഷേ എന്നെങ്കിലും സാധിക്കുക ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കാണണം എന്ന് ആഗ്രഹിച്ച ഒന്നാണ് വാൽനക്ഷത്രം വാൽനക്ഷത്രത്തിനെക്കുറിച്ച് പണ്ട് കുറെ ഞാൻ എൻ്റെ അമ്മുമ്മ വഴിയും അച്ചമ്മ വഴിയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെറിയ സാധാ ഒരു നക്ഷത്രത്തിൻ്റെ ബാക്കിൽ ചെറിയൊരു വാലായിട്ടുള്ളൊരു അങ്ങനെ ഒരു തരം നക്ഷത്രത്തിനാണ് വാൽനക്ഷത്രമെന്ന് പറയുക വാൽനക്ഷത്രം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലാന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിങ്ങനെ ഓടിച്ചാടി ഈ വാല് കൊണ്ട് പോയി അങ്ങനൊരു ഇത് പോലെയാണ് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് വാൽനക്ഷത്രത്തിന് ചിലർ കോമറ്റെന്നും പറഞ്ഞ് തെറ്റിധരിക്കുന്നു എന്നും കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ കോമറ്റും വാൽനക്ഷത്രവും രണ്ടും വേറെ വേറെയാണ് എന്നാണ് എൻറ്റൊരു അറിവില് വാൽനക്ഷത്രത്തിനെ കാണുവാണ് എന്നുണ്ടന്നുണ്ടങ്കിൽ അല്ലെങ്കിൽ വാൽനക്ഷത്രത്തിനെ കാണുമ്പോൾ മനസ്സിലെനിക്ക് തോന്നുക എന്നുള്ളത് അതിൻ്റെ കൂടെ എന്തായാലും കളിക്കുക എന്നുള്ളതായിരിക്കാം എന്താന്ന് വെച്ചാൽ ഒന്നാമത് നക്ഷത്രത്തിനോട് ഭയങ്കര കമ്പമുള്ള ഞാൻ ഒരു വാൽക്ഷത്രത്തിനെ കിട്ടിയാൽ ശരിക്കും കളിക്കാൻ തന്നെയാണ് ആദ്യം പുറപ്പെടുക നമ്മളാകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നമ്മളെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലെങ്കിലും അതിൻ്റെ ഒപ്പം പോയി നിന്ന് ഒന്ന് കളിക്കാനോ അതിൻ്റെ ഒപ്പം പോയി ഒ ന്ന് ഓടി കളിക്കാനോ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടാകും തോന്നാതിരിക്കില്ല അതേപോലെ തന്നെ ഒരു വാൽനക്ഷത്രത്തിനെ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം പോയി ഓടി കളിക്കാനാണ് എനിക്ക് ആദ്യം മനസ്സിൽ വരിക എന്നാണ് എൻ്റെ ഒരു ആണ് അങ്ങനെ തന്നെയാണ് മനസ്സിൽ വരിക അപ്പോൾ ഒരു വാൽനക്ഷത്രത്തിനെ കാണുക എന്നെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ ഓടി കളിക്കാനും പിന്നതിനെ തൊടാനും തലോടാനും പിന്നെ എന്ത് തന്നെ ആയാലും കുറെ അധികം ഫോട്ടോസെടുക്കാനും തന്നെയായിരിക്കും ഒരു വാൽനക്ഷത്രത്തെ കാണുമ്പോൾ എനിക്കാദ്യം മനസ്സിലേക്ക് വരിക